തീർച്ചയായും കൊറോണ കാലഘട്ടം എന്ന് പറയുന്നത് നമുക്ക് ഒരിക്കലും മറക്കാൻ ആകാത്ത കാലഘട്ടമായിരുന്നു കാരണം നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത പലതും ആയിരുന്നു ആ കാലഘട്ടത്തിൽ സംഭവിച്ചത് കാരണം നമ്മൾ ഒരിക്കലും ഇങ്ങനത്തെ ഒര് അസുഖം ഇങ്ങനത്തെ ഒരു വൈറസ് അസുഖം നമ്മളെ ബാധിക്കുമെന്നും പിന്നീട് ഉള്ള നമ്മുടെ ജീവിതം ഈ ഒരു തരത്തിൽ ആകുമെന്ന് നമ്മൾ ഒരിക്കലും കരുതിയില്ല അങ്ങ് ചൈനയിൽ നിന്നുള്ള അതിൻ്റെ ഉത്ഭവം പിന്നീട് ഇന്ത്യ ഒട്ടാകെ അത് ബാധിച്ച് പല രാജ്യങ്ങളും അതിൻ്റെ ഒരു വിപത്തിൽ നിന്നും ഇപ്പോഴും കര കേറിയിട്ടില്ല എന്ന് വേണം പറയാൻ എന്ന് വേണമെങ്കിൽ പറയാം അങ്ങനെ കൊറേട് കൊറോണയുടെ സമയത്ത് എല്ലാവരും ഒരുവിധം ദുരിതത്തിലായിരുന്നു ഒരുവിധം ഞാൻ പിന്നെ നാട്ടിൻ പ്രദേശത്ത് ഉള്ളത് ആയതുകൊണ്ട് നമുക്ക് അധികം കൊറോണയുടെ ആ ഒരു കൊറോണയുടെ അത്രയും തീവ്രത നമ്മൾ ഇവിടെ അധികം അനുഭവിച്ച് ആരും അറിഞ്ഞിട്ടില്ല നഗര പ്രദേശങ്ങളിൽ നോക്കുവാണെങ്കിൽ ചില അത്യാവശ്യം കൊറോണ ആയത് കൊണ്ട് വിലക്കും കാര്യങ്ങളും മാസ്കും എല്ലാം ധരിച്ച് അത്യാവശ്യം നല്ല അകലമായി പാലിച്ച് തന്നെ ജീവിക്കുന്നവരായിരുന്നു പക്ഷെ നാട്ടു പ്രദേശങ്ങളിൽ അധികം വൈറസ് അധികം ഇവിടോട്ട് എത്താത്തത് കൊണ്ട് ഇവിടുത്തെ ആൾക്കാരൊന്നും അതിനെ കുറിച്ച് ബോധവാന്മാർ ആയിരുന്നല്ലാത്തതു കൊണ്ടും അധികം ഞങ്ങളുടെ ഇവിടെ ഒന്നും അധികം ആരും മാസ്കും ആരും അങ്ങനെ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നില്ല പിന്നെ കുട്ടികൾ ഒക്കെയാണ് അവർ സ്കൂളിലോട്ട് പോകുന്ന സമയത്ത് അല്ലെങ്കിൽ പരീക്ഷ എഴുതാൻ വേണ്ടി മാത്രം സ്കുളിലോട്ട് പോകുന്ന സമയത്ത് അവര് മാസ്ക് ഉപയോഗിക്കുമായിരുന്നു സാനിറ്റയിസറും മറ്റും ഉപയോഗിച്ച് അങ്ങനെ മുൻകരുതലോട് കൂടിയാണ് അവർ സ്കൂളുകളിലോട്ട് പോയിരുന്നത് പിന്നീട് കുറച്ച് കാലം കഴിഞ്ഞപ്പോഴാണ് വീട്ടിനപ്പുറത്തുള്ള അയൽവാസി അയൽവാസികൾക്ക് അവർക്ക് കൊറോണ ബാധിച്ചത് തീർച്ചയായും അപ്പോ ഞങ്ങൾ ഒരുപാട് ഭയപ്പെട്ടിരുന്നു കാരണം തീർച്ചയായും അവിടുന്ന് ഇങ്ങോട്ട് പടരാൻ ഉള്ള സാഹചര്യം കൂടുതലാണ് പക്ഷെ അങ്ങനെയൊന്നും സംഭവിച്ചില്ല അകലം പാലിച്ച് തന്നെയാണ് പിന്നീട് ഞങ്ങൾ ഉണ്ടായിരുന്നത് പിന്നെ പിന്നീട് അവർക്ക് കോറോണയിൽ നിന്ന് ഭേദമാകുകയും ചെയ്തു കുടുംബത്തെ ഇപ്പൊ എൻ്റെ കുടുംബത്തെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഞങ്ങള് അത് പറഞ്ഞപോലെ മാസ്കും സാനിറ്റയിസും ഒക്കെ ഇടക്ക് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു വ്യക്തി ശുചിത്വം എന്ന് പറയുന്ന ഭയങ്കര പ്രധാനമായിരുന്നു ആ ഒരു കാലഘട്ടത്തിൽ അപ്പോ എൻ്റെ വീട്ടിലുള്ള അനിയത്തിയൊക്കെ സ്കൂളിൽ പോയിട്ട് വരുന്ന സമയത്ത് തിരിച്ച് വരുന്ന സമയത്ത് സാനിറ്റയ്സർ വെച്ച് കൈ കഴുകിയും അങ്ങനെ ശുചിത്വം പാലിച്ചുമാണ് ആ ഒരു കാലഘട്ടം മുന്നോട്ട് പോകുന്നുണ്ടായിരുന്നത് അതുപോലെ തന്നെ നമുക്ക് പ്രതിരോധ ശേഷി എന്ന് പറയുന്നത് പ്രധാനപ്പെട്ടതാണ് കാരണം നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ അത്യാവശ്യം പ്രതിരോധം ഉണ്ടെങ്കിൽ നമുക്ക് കൊറോണ എന്ന അസുഖത്തിൽ നിന്ന് നമുക്ക് ഒരു നമുക്ക് ഒരു പരിധി വരെ നമുക്ക് രക്ഷപ്പെടാം അല്ലെങ്കിൽ അതുകൊണ്ടുന്ന അതുകൊണ്ട് ഉണ്ടാകുന്ന ആഘാതം നമുക്ക് കുറക്കാൻ സാധിക്കും കാരണം പല വ്യക്തികളും കൊറോണ ബാധിച്ച് ശരീരം ആകെ തളർന്ന് ഒരു ഭയങ്കര ഒരു മോശം അവസ്ഥയിലാണ് അതിൽ നിന്ന് രക്ഷപ്പെടാൻ അല്ലെങ്കിൽ അതിൽ നിന്ന് ഒരു മാറ്റം സംഭവിക്കാൻ നമ്മൾ പ്രതിരോധ ശേഷിയുള്ള ഭക്ഷണങ്ങൾ കഴിക്കുക എന്നു തന്നെയാണ് അപ്പോ അതിനായി ഒരുപാട് നല്ല ഭക്ഷണങ്ങൾ കഴിക്കാൻ അങ്ങനെ കുറച്ച് നല്ല ഭക്ഷണങ്ങൾ ആരോഗ്യത്തെ കുറിച്ച് എല്ലാവരും ബോധവാന്മാരായി എങ്ങനെയൊക്കെ നമുക്ക് ശുചിത്വം പാലിക്കാം എന്നൊക്കെ ചിന്തിച്ച് ഒരു കാലഘട്ടമായിരുന്നു കൊറോണ കാലഘട്ടം